ഹലോ എന്താണെടാ നീ പറയൂ ഐ എസ് എല്ലോ ഐ എസ് എൽ കഴിഞ്ഞദിവസം ഏത് കളിയാണ് ആ മോനെ ഞാൻ പറയാന് ഞാൻ വിളിക്കാന് വേണ്ടി വരികയായിരുന്നു എന്ത് കിടിലൻ കളിയായിരുന്നു ഓ രണ്ട് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ട് അയ്യോ അതും നാല്പ്പത്തിരണ്ടാമത്തെ മിനിറ്റിലെങ്ങാണ്ടല്ലായിരുന്നുവോ ആദ്യത്തെ റെഡ് കാർഡ് ആ സെക്കൻഡ് നാല്പ്പത്തിരണ്ടാമത്തെ മിനിറ്റ് ഗോളടിച്ചിട്ട് അതുകഴിഞ്ഞിട്ട് ഫുള് പ്രൊട്ടക്ട് ചെയ്ത് എന്ത് കളിയാടാ അത് ഓ വിഷയം കളി ഞാൻ

മ്മ് മറ്റേ കോച്ചിൻ്റെ മാറ്റം കാണാനുണ്ട് യ്യോ ശരിയാണ് ഇവാനൊക്കെ ഉണ്ടായിരുന്നപ്പോള് എന്ത് തീയായിരുന്നു ഓ ഓ ലോണ ലോണ ലോണ ആ കളികണ്ടിട്ടൊരു സുഖമില്ല മ് മാസ്സായിരുന്നുവോയെന്ന് ആ ആ നമുക്കിതൊക്കെ കണ്ട് തോറ്റു തോറ്റു തോറ്റു കണ്ടു മടുത്തിട്ട് ഞാൻ കളി കാണാതിരിക്കുകയായിരുന്നു അപ്പോള് പിന്നെ എന്താണെങ്കിലും ഒരു ഗോൾ അടിച്ചതുകൊണ്ടു ഞാൻ ചുമ്മാതെ എടുത്തതാണ് പിന്നെ നല്ല കളിയായിരുന്നു മ് എനിക്കിത് കണ്ടിട്ട് ആ എനിക്ക് കണ്ടിട്ട് മറ്റേ വേൾഡ് കപ്പിൻ്റെ കളിയാണ് ഓർമ്മ വന്നത് മറ്റേ നെതര്ലാൻഡ്സിൻ്റെ കളിയൊക്കെ നെതർലാൻഡ്സെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കരം കാര്ഡ് മേടിച്ച സ്ഥലമില്ലേ മറ്റേ സെമി ഫൈനല് അല്ല ക്വാട്ടര് ക്വാട്ടർ ഫൈനല് ക്വാട്ടർ ഫൈനല് അയ്യോ അയ്യയ്യോ ഫൈനല് കണ്ടായിരുന്നുവോയെന്ന് ഞാനത് സ്ക്രീനിങ്ങിനു പോയി കണ്ടതാണ് യ്യോ യ്യോ എമ്പാപ്പെയുടെ ആ ഗോളൊക്കെ എന്തായിരുന്നുവെടാ ആ തിരിച്ചുവരവ് എൻ്റെ മോനെ ഞാൻ വിറച്ചുപോയി

കപ്പ് ഫ്രാൻസിന്റെ കയ്യിലിരുന്നേനെ ഏതായാലുമിപ്പോള് ഹോ എതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപെട്ടു പിന്നെ നമുക്ക് ഏ കൊച്ചിയില് പോയി കളി കാണണം പിന്നെയല്ലാതെ

എന്നാണ് എന്നാണ് ഇനി കളിയുള്ളത് ഒഡീഷയുമായിട്ടോ കൊച്ചിയില് എന്നാണ് കളിയുള്ളത് ആണോ എന്നാല് നമുക്ക് അന്നുതന്നെ പോയേക്കാം ടിക്കറ്റൊക്കെ കിട്ടുമോ ബുക്ക് ചെയ്തോളൂ എട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ ആ മതി വേറെയാരും വേണ്ട വേറെയാരെയെങ്കിലും കൊണ്ടുവരണമോ നോക്കാം നോക്കാം എവിടെയെങ്കിലുമൊക്കെ ചോദിക്കാം മ്മ് ശരി ശരി നമുക്ക് കാണാം